ഞാൻ ഞാൻ ഉച്ചയൂണിനും അത്താഴത്തിനും ഒറ്റ അടിക്കാണ് വയ്ക്കുന്നത് ഒരു തവണ വെപ്പേ ഉള്ളൂ ഉച്ചയൂണിന് എന്താണോ തയ്യാറാക്കുന്നത് അത് തന്നെയാണ് അത്താഴത്തിനും എടുക്കാറുള്ളത് പിന്നെ തികയാതെ വ തികയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം എന്തെങ്കിലും വൈകുന്നേരം എന്തെങ്കിലും ചെറിയ രീതിയിലുണ്ടാക്കാറേ ഉള്ളൂ ഉച്ചയൂണിന് ചോറ് ഏതെങ്കിലും ഒരു കൂട്ടാൻ പിന്നെയൊരു തോരൻ പപ്പടം അച്ചാറ് ഒരു ചമ്മന്തി ഇത്രയുമാണ് ഞാൻ ഉച്ചയൂണിനും അത്താഴത്തിനുമൊക്കെയായിട്ട് തയ്യാറാക്കാറുള്ളത് കൂട്ടാനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പാറാകാം മോരാകാം എന്തെങ്കിലും തീയൽ കറിയാകാം തോരൻ ചിലപ്പോൾ അച്ചിങ്ങ പയറോ കോവയ്ക്കയോ പയറോ അങ്ങനെയൊക്കെ ആകാം ഇതാണ് ഞാൻ സാധാരണ വയ്ക്കാറുള്ളത്